മത്സ്യബന്ധനം നടത്തുന്നവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് പ്രകൃതി ക്ഷോഭങ്ങളാണ് സുനാമികൾ വേലിയേറ്റങ്ങൾ വേലിയിറക്കങ്ങൾ കടലിനടിയിൽ ഉണ്ടാവുന്ന ഭൂകമ്പങ്ങൾ ചുഴലിക്കാറ്റുകൾ കൊടുങ്കാറ്റുകൾ കടലിൽ ഉണ്ടാവുന്ന ചുഴികൾ ഇവയെല്ലാം വളരെ അപകടങ്ങളുണ്ടാക്കുന്നവയാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ക്ഷോഭങ്ങൾ മത്സ്യ തൊഴിലാളികൾക്കും മറ്റും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം അപകടകരമായ സാഹചര്യങ്ങൾ മറികടക്കുക എന്നത് വളരെ വിഷമം ഉള്ള ഒരു കാര്യമാണ് ഇത്തരം അപകടങ്ങളിൽപെട്ട് ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അനാഥമായ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഞങ്ങളും ഒരിക്കൽ ഇത്തരം അവസ്ഥയിലൂടെ കടന്ന് പോയിട്ടുണ്ട് ആ സാഹചര്യം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ സമയത്ത് ഉണ്ടാവുന്ന മരണഭയം അത് വളരെ വലുതാണ് ഇത്തരം മോശം കാലാവസ്ഥകളിൽ കഴിയുന്നതും മത്സ്യ ബന്ധനത്തിന് പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അഥവാ നമ്മൾ അത്തരം ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടുപോയാൽ അതിനെ തരണം ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ് ചിലപ്പോൾ ആ സാഹചര്യത്തിൽ കടലിലായതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളം കിട്ടണം എന്നില്ല നമ്മൾ ചെയ്യേണ്ടത് അത്തരം അപകട സാഹചര്യങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക അല്ലെങ്കിൽ ബോട്ടുകൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ മല് നമ്മൾ തീർച്ചയായും ലൈഫ് ജാറ്റുകള് അതായത് ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ചിരിക്കണം